ഇത് ഡോക്ടറല്ലേ കുറെയായി ഇങ്ങൾക്ക് വിളിക്കണം കേൾക്കണ് എനിക്കൊരു ഇപ്പോൾ ചെറുതിനൊരു മോശം ഇല്ല അതേമാതിരി ഭയങ്കര ക്ഷീണമാണ് ഉറക്കം തന്നെ വരുണ്ട് അങ്ങട്ടിറങ്ങാൻ നോക്കിയാലും ഉറക്കം വരില്ല പിന്നെ ഭക്ഷണത്തിന് ഭക്ഷണം തിന്നാൻ നല്ല ആഗ്രഹമുണ്ട് ഭയങ്കര വിശപ്പാണ് പക്ഷേ ഭക്ഷണം കഴിക്കാൻ തോന്നൂല അങ്ങനൊക്കൊരു എന്നാ ഞാൻ ഒരു ടി വി കാണാനോ അല്ലെങ്കിൽ മൊബൈലേക്ക് നോക്കാൻ ഒന്നിനും ഒരുന്മേഷം കിട്ടണില്ല ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങൾക്ക് വിളിച്ച് ഞാണ്ടിങ്ങനെ വിവരം പറയണം കരുതും ഇങ്ങനെ ആയിട്ടിപ്പോൾ ഒരു ഏകദേശം ഒരു മാസമാകാനായി

ആ വീട്ടിൽ അറിഞ്ഞാൽ പിന്നെ പിന്നെ കുട്ടികൾ ഒക്കെ അവർ പഠിക്കണൊന്നുമില്ല പഠിക്കാൻ ഭയങ്കര മടിയാണ് അതിലൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു എനിക്കപ്പോൾ അവരോട് പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല ആ ഇങ്ങനെ മനസുക്ക് വന്നിട്ടാണാവോ ഒരു ഭയങ്കരം ഒരു എന്താ എന്ത് ചെയ്യാൻ തോന്നില്ല ജോലിയും ചെയ്യാൻ തോന്നില്ല അങ്ങനെ കിടക്കും ആ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഒരാക്കിരുപത് വയസായേക്കണ് ഒരാൾക്ക് പതിനഞ്ച് വയസായേക്കണ് ഒരാൾക്ക് പത്ത് വയസായേക്കണ് മൂന്ന് പേരാണ്

ഇല്ല

ആ അവരൊക്കെ ആറര മണി ആറ് മണി ഒക്കെ ആവുമ്പോൾ വരുന്നത്

ആ

ആയിക്കോട്ടെ എന്നാൽ പിന്നെ ശരി ഡോക്ടറെ എന്നാൽ ഓക്കെ